ഹലോ പിന്നെ ആ ആരായിരുന്നു ആരായിരുന്നു ഓ ആ ആ ആ ആ ആ ആ ആ ചേച്ചി പിന്നെ അതേ ഞാൻ ഇങ്ങനെ പിന്നെ പലർക്കും എടുത്തു കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല ഇവടെ അമ്പൂരി അമ്പൂരിയിലൊക്കെ അമ്പൂരിയിലൊക്കെ ചില കടകളിലൊക്കെ എടുത്തു കൊടുക്കുന്നു നമുക്ക് ഈ ഇവിടെ ഈ പിന്നെ മൂന്നാറിലെ മൂന്നാർ ഭാഗം മൂന്നാർ അല്ലെ പിന്നെ അടിമാലിയോ പിന്നെ അല്ലെങ്കിൽ വാഗമണ്ണോ അങ്ങനെയൊക്കെ പല നമ്മുടെ പല ഏരിയകൾ ഉണ്ടല്ലോ അവിടെയൊക്കെ ഈ സംഭവം കിട്ടും പിന്നെ നമുക്ക് സഹായകപരമായ വിലയ്ക്ക് എന്നെ എടുത്തു തരാം ചേച്ചിക്ക് ഓക്കെ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ അത് ശരി ആ ആ ആണോ എന്നാ അപ്പൊഴേ അപ്പോഴേ ഞാൻ ഒന്ന് പിന്നെ ഒരു ഒന്ന് രണ്ട് പേരെ നമ്പർ എനിക്ക് അറിയാം അവരെ ഒന്ന് ആ അതെ അതെ അതെ അവിടെ അവിടെ ഒരു ഒരു പാർട്ടിയുണ്ട് നമുക്ക് ഒരു പാർട്ടി ഉണ്ട് അവിടെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ ആ അങ്ങേര് പുള്ളിക്കാരൻ ഈയായിട്ട് നമുക്ക് പിന്നെ സാധനം എടുക്കാം ഞാൻ ഒന്ന് റൈറ്റൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കിയിട്ട് ചേച്ചിയുടെ അടുത്ത് ആ ഓക്കേ ഓക്കേ അതൊന്നും അതൊന്നും കുഴപ്പമൊന്നുമില്ല ചേച്ചി നമ്മൾ പിന്നെ ഇങ്ങനെ ഹോൾസെയില് പരിപാടി ചെയ്യുന്നത് കൊണ്ട് ആ അതിന് അവർ അവർ വില കുറച്ച് വില കുറച്ച് സാധനം തരും നമ്മൾ അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓക്കെ ഓക്കേ അത് നമുക്ക് നേ ചെയ്യാം ചേച്ചി കുഴപ്പമില്ല അതെ അതെ അല്ല അല്ല നല്ല സാധനാണ് അവിടെ അവിടെ അവിടെ നല്ല നല്ല സാധനമാണ് നല്ല സാധനമാണ് ആ അതില്ല അ അ ആ അത് നമുക്ക് പിന്നെ നല്ല സാധനം കിട്ടും ചേച്ചി ഞാൻ പിന്നെ ഒരാളുടെ നമ്പറുണ്ട് എന്തോ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ നാളെ തന്നെ ഇയാളെ വിളിക്കാം ഏ വിളിച്ചിട്ട് പിന്നെ ചേച്ചിയുടെ അടുത്ത് വിശദമായിട്ട് ഞാൻ പറഞ്ഞ് തരാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ പിന്നെ ഉണ്ട് പിന്നെ അല്ലെങ്കിൽ അടിമാലിയോ അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എവിടെയാണ് നമ്മുടെ ഓ പിന്നെ ഈരാറ്റുപേട്ടയ്ക്ക് അപ്പുറത്തൊക്കെ സ്ഥലമുണ്ട് പിന്നെ പിന്നെ അവിടെയൊക്കെ കിട്ടും നല്ല ആ ആ അതെ അതെ അത് ഇല്ല ഞാൻ പറഞ്ഞ ഇത് നല്ല ഇതാണ് പിന്നെ നെടുകണ്ടത്തിൽ നിന്ന് നമ്മൾ പിന്നെ പോകുന്ന വഴിക്കാണ് നല്ല നല്ല ഏ എങ്ങനെ ഇല്ല പിന്നെ എനിക്ക് പരിചയത്തിലുള്ള ഒരു കക്ഷിയുണ്ട് നമ്മളെ ഈ ഈ ഇത്തരത്തിലുള്ള പിന്നെ ഇടപാടുകൾ നടത്തുന്ന ഒരാളുണ്ട് ആ ആളുടെ നമ്പര് എൻറ്റേലുണ്ട് ഏ ഞാൻ ആൾ വഴിയായിട്ട് നമുക്ക് കര്യങ്ങളെടുക്കാം സഹായിക്കാം ഏ ആ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ ഉറപ്പായിട്ടും ഞാൻ നാളെ ചേച്ചിയുടെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയാം എങ്ങനെയാണ് എത്ര രൂപയാണ് ആ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ആ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വിളിക്കാം ആ ഓക്കെ ചേച്ചി ഓക്കെ ഓക്കെ ആ ഉറപ്പായിട്ടും അറിയിക്കും ആ